ടെൻ്റുകളിലെ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു ടെൻ്റ് നമ്മൾ അവിടെ ചെല്ലുന്നു ആ ഒരു ഏരിയ നീറ്റ് ആക്കുന്നു അതിനുശേഷം നമ്മൾ അവിടെ ടെൻ്റടിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ ഒക്കെ നോക്കി ടെൻ്റ് അറേഞ്ച് ചെയ്യുന്നു അതിൻ്റെ അകത്ത് താമസം എന്നു പറഞ്ഞാൽ നല്ല യാത്ര പ്രകൃതി ആസ്വദിച്ചു കൊണ്ടുള്ള താമസവും അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെത്തന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ കുക്ക് ചെയ്യുക കുക്കിംഗ് കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ അത് ഓരോ പോസിറ്റീവ് വൈബ് തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ എപ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നതും അങ്ങനെയുള്ള യാത്രകളും ടെൻ്റുകളിലുള്ള താമസങ്ങളും തന്നെയായിരിക്കും അപ്പോൾ ഇനിയും നമ്മൾ യാത്രകൾ പുറപ്പെടുന്ന സമയത്ത് ടെൻ്റുകൾ കെട്ടി പിന്നെ പുറത്ത് കുക്ക് ചെയ്തു നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ് യാത്രകൾ